ഇന്ന് ഇന്ത്യ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ വെച്ചാൽ മോശം ശുചിത്വ സൗകര്യങ്ങള് തൊഴിലില്ലായ്മ നിരക്ഷരത സ്ത്രീ സുരക്ഷത ജനസംഖ്യ വര്ദ്ധനവ് ഇതൊക്കെയാണ് ഇതൊക്കെ പരിഹരിക്കുന്നത് വെച്ചാല് എളുപ്പമല്ല എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ചെയ്യാനും നോക്കുന്നുണ്ട് ഈ പ്രശ്നനങ്ങളൊക്കെ പരിഹരിക്കാന് അടിസ്ഥാനമായി കുറേ കാര്യങ്ങള് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട് ഈ തൊഴിലില്ലായ്മ സ്ത്രീ സുരക്ഷ ഇതൊക്കെ പരിഹരിക്കാന് പറ്റുന്ന കാര്യങ്ങളുമാണ് മോശ ശുചിത്വ സൗകര്യങ്ങളും ഇതൊക്കെ നമ്മള് പരമാവധി ഇതാക്കാന് നോക്കണം എല്ലാവരെക്കൊണ്ടും പറ്റും നമ്മൾ വിചാരിച്ചാല് മതി സര്ക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് സ്വയം വിചാരിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ